ഹലോ കെ എസ് ഇ ബി അല്ലേ എന്റെ പേര് മനുവെന്നാണ് ഞാന് പില്ഗ്രികളില് നിന്നാണ് വിളിക്കുന്നത് എന്റെ കണ്സ്യൂമര് ഐ ഡി രണ്ട് മൂന്ന് നാല് അഞ്ച് ആണ് അപ്പോള് ഞാന് വിളിച്ചതെന്ന് പറഞ്ഞാല് ഈ മാസത്തെ എന്റെ വൈദ്യുതി ബില്ലെനിക്ക് ലഭിച്ചു എന്നാലും ഉയര്ന്ന ഒരു വൈദ്യുതി ബില്ലാണെനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോള് എനിക്ക് മീറ്ററിന്റെ റീഡിങ്ങില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇല്ലെങ്കിലെനിക്കൊരിക്കലും ഇത്രേമൊരു വലിയ ബില്ല് വരില്ല ആയിരത്തി എണ്ണൂറ് രൂപയാണെനിക്ക് കരണ്ട് ബില്ല് വന്നിരിക്കുന്നത് അപ്പോള് ഈ മാസം എനിക്ക് കരണ്ടിന്റെ ഉപയോഗം വളരെ കുറവായിരുന്നു അതുകൊണ്ടുതന്നെ ഇത്രയും വലിയൊരു എമൗണ്ടെനിക്ക് ബില്ല് വന്നതിലെനിക്കൊരു സംശയമുണ്ടപ്പോള് എന്റെ മീറ്റര് റീഡിങ്ങിലെന്തെങ്കിലും പ്രശ്നമുണ്ടതാണ് ഉള്ളതായിട്ടാണെനിക്ക് തോന്നുന്നത് അപ്പോള് ദയവായിട്ട് നിങ്ങള് പുതിയൊരു മീറ്റര് വയ്ക്കുക എന്റെ റീഡിങ്ങൊന്നും കൂടി ചെക്ക് ചെയ്യുവാനോ ഞാനഭ്യര്ത്ഥിക്കയാണ് അതുപോലെ എന്റെ ഈ വ മാസത്തെ ബില്ല് ഒന്നു കൂടിയൊന്ന് ഉറപ്പ് വരുത്തണം പരിശോധിച്ചിട്ട് എന്തെങ്കിലും കറക്റ്റാന്നൊ അതിന്റെ വൈദ്യുതി ഉപഭോഗത്തിന്റെ കൃത കൃത്യതയും അതൊക്കെയൊന്ന് ഉറപ്പിക്കണം അതുപോലെ അമിതമായിട്ടോ എനിക്ക് ചാര്ജിപ്പോള് കിട്ടിയിരിക്കുവാണ് അപ്പോള് അതും കൂടിയൊന്ന് കുറയ്ക്കണം എന്നാണെനിക്കഭ്യര്ത്ഥിക്കാനുള്ളത് അപ്പോള് ദയവായിട്ട് നിങ്ങള് ഒരു ആളെ വിട്ട് എന്റെ മീറ്റര് ഒന്ന് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്ത് അതിന്റെ അതിന്റെ ഉപയോഗം ഒന്ന് ഉറപ്പാക്കണം അതിന്റെ ലഭ്യത അപ്പോള് ഞാനാണു വിളിച്ചതെന്നുവച്ചാല് നിങ്ങള് ദയവായിട്ട് ഒരു നിങ്ങളുടെ ഒരു ആളെ വിട്ട് മീറ്ററൊന്ന് പരിശോധിക്കുകയും എന്റെ വൈദ്യുതി ബില്ല് അമിതമായിട്ട് വന്ന ചാര്ജ് ഒന്ന് ഒഴിവാക്കിത്തരുകയും ചെയ്യണം ഓക്കെ